ആ അതെ ഞാൻ വിളിച്ചത് നമുക്ക് ആ ഞാൻ ക ഒരു കർഷകനാണ് എനിക്ക് ഒരു വിത്തിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു നിങ്ങൾക്കവിടെ സ്റ്റോക്ക് വല്ലോം വിത്ത് വന്നിട്ടുണ്ടോ പുതിയയിനം വല്ലോം ആണോ നമുക്കത്യാവശ്യം നെല്ലിൻ്റെയും പിന്നെ പയറ് വെണ്ട അങ്ങനെയൊക്കെയുള്ള കൃഷിയിതില്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ ചെയ്തോന്ന് കാരണം നമുക്കത് വിത്തൊക്കെ കിട്ടി അതൊക്കെ ഇപ്പാകുമ്പോൾ കാലാവസ്ഥയും അനുകൂലമാണ് നമുക്ക് വിത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സമയമാണ്

ആണോ ഞമ്മൾ സ്ഥിരം അവിടുന്ന് തന്നെ എടുക്കുന്ന ആൾക്കാരാണ് ആ അപ്പം ആ അതുതന്നെ അത് നമുക്ക് സ്ഥിരം അവിടുന്ന് എടുക്കുന്നതായത് കൊണ്ട് അതാ ഞാൻ വിളിച്ചു ചോദിക്കുന്നത് കാരണം നമ്മൾ വെറെങ്ങും പോകാതെ നമുക്ക് അവിടുന്ന് ഒരു വിശ്വാസമുള്ളത് കൊണ്ട് നല്ല വിത്തുകളാണ് ആ ആ ഹാ ആ ഞാനത് അത് ആ വിളിച്ചപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും അനുകൂലമായ കാലാവസ്ഥയൊക്കെ ആയോണ്ടെ നമ്മളിപ്പോൾ കൃഷിയിറക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഇറക്കിയാലേ നമുക്ക് വലിയ മഴയത്തൊക്കെ മുമ്പായിട്ട് നമുക്കതിൻ്റെ ഫലമൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോം ആ അറിയാവല്ലോ അവിടെ നമ്മളെടുക്കുന്നയായൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാവല്ലോ അപ്പോൾ പുതിയതാണ് ആ പുതിയതൊക്കെ വന്നിട്ടുണ്ടൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കൊണ്ടുവരാനാണ് നമുക്ക് അത്യാവശ്യം നെല്ലിൻ്റെ വേണം ആ നെല്ലിൻ്റെ കുറച്ച് വേണം കുറച്ച് കണ്ടോണ്ട് അപ്പോൾ കുറച്ച് നെല്ല് നമുക്കവിടെ വിത്ത് വിതയ്ക്കാം പിന്നെ അവിടെ കണ്ടത്തിൽ തന്നെ കുറച്ച് പയറ് പാവൽ പിന്നെ കുറച്ച് നമുക്ക് വെണ്ട അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്നതും അത്യാവശ്യം വിൽക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ആ ഉണ്ടുണ്ട് നമുക്ക് രണ്ട് രണ്ട് ഏക്കറ് മൂന്ന് ഏക്കറ് സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്തിലാണ് കൃഷി ചെയതോണ്ടിരിക്കുന്നത് ആ അപ്പോൾ അതിനകത്ത് കൊള്ളത്തക്ക രീതിയിൽ കൃഷിയെ ആ വിത്തുകളെല്ലാം വേണം ആ ഹ അവിടാകുമ്പോൾ നമുക്കവിടെ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇഷ്ടം പോലെ കിട്ടുവെന്നറിയാം ആ നമുക്ക് നല്ലത് പുതിയതൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള ഒരു അറിവ് കിട്ടി അതാണ് വിളിച്ച് ചോദിച്ചത് അപ്പം നമ്മൾ ഇത്രയും ദൂരെന്ന് അവിടൊന്ന് വന്നിട്ട് നമ്മൾ ഇത്രെം ദൂരെ കൂടുതലാണല്ലോ നല്ല വിത്ത് അവിടുന്ന് കിട്ടുന്നുന്ന് എന്നറിഞ്ഞത് കൊണ്ട് അതുകൊണ്ടാണ് നമ്മളീ വരുന്നത് നമ്മളിവിടുന്ന് അടുത്തുന്നൊന്നും മേടിക്കാതെ അത്രേം ദൂരെ വന്ന് മേടിക്കുന്നത് നിങ്ങൾ നല്ല വിത്താണ് നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ളതാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്കറിയാം

ആ അതുതന്നെ ആ ആ അതുതന്നെ അതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാരോട് ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഇതെവിടുന്നാണ് നിങ്ങൾ വിത്ത് മേടിക്കുന്നത് ഒന്നും നിങ്ങൾക്ക് ഡാമേജയിട്ടൊന്നും പോകുന്നില്ലല്ലോ എല്ലാ ഫലം കിട്ടുന്നുണ്ടല്ലോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാരോട് പറഞ്ഞുവിട്ടിട്ടുണ്ട് ഇന്നെടുത്തുണ്ട് പോയി മേടിച്ചാൽ മതിയെന്ന് ആ അവിടുത്തെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ വരും വിളിക്കും മേടിക്കാനൊക്കെ അപ്പോൾ നല്ല ആ ആ ആ അതാണ് നമ്മുടെ നല്ല സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ആൾക്കാർക്കത് ആ അതാണ് പറഞ്ഞത് ആൾക്കാർക്കന്നേരം അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും ദൂരെ നിന്നാണേലും അവിടെന്ന് തന്നെ സ്ഥിരം എടുക്കുന്നത് ആ ഓ ഓക്കെ ശരി ഓക്കെ ഓക്കെ